സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃഷിക്കായിട്ട് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവൽ സെൻട്രൽ ലെവൽ അങ്ങനെയുള്ള ലെവൽസില് നിന്നൊക്കെ ഒരുപാട് സ്കീംസ് വന്നിട്ടുണ്ട് വായ്പകളും അങ്ങനെയുള്ള സ്കീംസ് സബ്സിഡി കർഷകർക്കായിട്ടുണ്ട് നയൻറ്റി പെർസെന്റിന്റെയുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് അതായത് നിങ്ങള് വൺ ലാക്കിന്റെ ഇപ്പം എടുത്തുവെന്ന് വിചാരിക്കുക അപ്പോള് നിങ്ങള്ക്ക് ഇത്ര ശതമാനം ടു പെർസെൻറ്റേജ് അല്ലെങ്കില് ത്രീ പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങളുടെ സബ്സിഡി ഇത് നിങ്ങള്ക്ക് കൊടുക്കേണ്ടത് പിന്നെ ചിലത് വന്നിരിക്കുന്നത് പകുതി ഇപ്പോള് ഒരു ലക്ഷം രൂപ എടുക്കുകയാണെങ്കില് ഫോർട്ടി തൗസൻഡ് ഗവൺമെൻറ് പേ ചെയ്യും ബാക്കിയുള്ളത് മാത്രം നിങ്ങള് പേ ചെയ്താല് മതി ഇങ്ങനെയൊക്കെ ചില സ്കീംസ് വന്നിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ സ്കീംസ് വന്നിട്ടുണ്ടെങ്കിലും കൂടുതലും ഈ സ്കീംസ് കിട്ടുന്നത് ഈ വേണ്ടാത്ത ആൾക്കാർക്കാണ് ഈ സ്കീംസ് കിട്ടുന്നത് വേണ്ട ആവശ്യമുള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഈ സ്കീംസ് അവർക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കില് ഈ പി എം മോദി കിസാൻ്റെ സ്കീം അത് ഹെക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് ചിലപ്പം കിട്ടാറില്ല അല്ലെങ്കില് ഹെക്ടേഴ്സ് കൂടുതല് ലാൻഡ് ഹെക്ടേഴ്സ് കൂടുതലുള്ളവർക്ക് ചിലപ്പോള് കിട്ടുകയും ചെയ്യും അപ്പോള് അത് ചില രീതിയിലാണ് നമ്മുടെ ഇത് സർക്കാരിൻ്റെ ഒരിത് നടന്നുപോകുന്നത് അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുണ്ടാകുന്നുണ്ട് വായ്പകളെക്കുറിച്ചും അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അത് അറിയാറുണ്ട് ഇപ്പം എൻ്റെ ഇതിലാണെങ്കില് ഞാനത് അറിയുന്നത് എൻ്റെ മൊബൈലില് യൂട്യൂബ് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളില് ഞാൻ ആക്റ്റീവാണ് ഞാന് കേരള അല്ലെങ്കില് സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ പദ്ധതി അങ്ങനെയുള്ള സംഭവങ്ങള് പെൻഷൻസ് ഫാമേഴ്സിൻ്റെ കാറ്റഗറി അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇതില് അലര്ട്ടായിടാറുണ്ട് സോ ഓരോ ഗവൺമെൻറ് സ്കീംസ് പുതിയ പുതിയ അല്ലെങ്കില് പുതിയ പുതിയ ഇത് വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാനത് എടുത്ത് വായിക്കാറുണ്ട് അല്ലെങ്കില് ഞാന് അവര് പറയുന്ന യൂട്യൂബില് ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് കാണാറുമുണ്ട് അപ്പം ഇപ്പം ഈ മാസം പുതിയൊരു സ്കീം ഇറങ്ങി അതെൻ്റെ മൊബൈലില് ഞാൻ അലേട്ടാക്കി വെയ്ക്കാറുണ്ട് എനിക്കറിയാൻ പറ്റുന്നുണ്ട് അപ്പോള് ഞാനത് കാര്യങ്ങള് മനസ്സിലാക്കി ഞാൻ ചിലപ്പോള് ഷെയര് ചെയ്യാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൽ കുറച്ച് പേരിങ്ങനെ കാർഷിക ഇതിലുള്ളവരാണ് അവരുടെ പാരൻറ്സ് സോ ഞാനത് ഇടാറുണ്ട് ഞാനത് ഷെയര് ചെയ്ത് എല്ലാവരെയും അറിയിക്കാറുമുണ്ട് സൊ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരുപാട് സ്കീംസും അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പി എം കിസാൻ മോദി സ്കീമുണ്ട് പിന്നെ ഉദ്യാനി അങ്ങനെയുള്ള എന്തോ ഒരു സ്കീമുണ്ട് അതുകൂടാതെ ഹോർട്ടിക്കൾച്ചറിന്റെ എന്തോ ഒരു സ്കീമുണ്ട് സ്പോൾ ഡെവലപ്മെൻറിന്റെ എന്തോ ഇതുണ്ട് പെസ്റ്റിസൈഡ്സിൻ്റെ സ്കീമിൻ്റെ എന്തോ ഉണ്ട് പെൻഷൻ അങ്ങനെയുള്ള സംഭവങ്ങള് ഒരുപാട് ഒരുപാട് സ്കീംസ് വരുന്നുണ്ട് പക്ഷേ ഈ വരുന്ന ഈ കർഷക ആൾക്കാരെന്ന് പറയുമ്പോള് അവരധികം വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്കീംസ് വരുമ്പോള്ത്തന്നെ അവർക്ക് അറിയണമെന്നില്ല അവര് ചിലപ്പം ഇന്നൊരു പുതിയ സ്കീം വന്നുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഒരു പുതിയ സ്കീം വന്നുകഴിഞ്ഞാൽ അത് അവര് അറിയുന്നത് ചിലപ്പോള് ഒരു അഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും അറിയുന്നത് സൊ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇപ്പോളൊരു ന്യൂസ് ചാനലില് പോലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സോ ഇതൊക്കെ നമ്മളൊന്ന് അലേർട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കില് ഫ്ലെക്സ് അടിച്ചിട്ട് ന്യൂസ് പേപ്പറിലോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലോ ഇട്ടുകൊടുക്കുകയാണെങ്കില് അതൊക്കെ വളരെ ഉപയോഗമായിട്ട് തോന്നുമെന്നാണ് എൻ്റെയൊരിത്